നല്ലൊരു കമ്പനിടെ ഷു ആ ഒക്കെ നോക്കിട്ടെന്നെയാ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെ അത്യാവശ്യം വിലയും കൊടുത്തു ഏകദേശം വന്നിട്ട് ആയിരത്തി നാനൂറ് സംതിങ്ങ് ഒക്കെ വില കൊടുത്തിട്ടാണ് അത് മേടിച്ചത് ഓർഡർ ചെയ്തിരുന്ന സമയത്ത് വരും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വന്ന സമയത്ത് തന്നെ ആദ്യത്തെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാ ഞാൻ ഉദ്ദേശിച്ച കളറും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല പിന്നെ നോക്കുവാണെന്നു പറയുമ്പോൾ സൈസ് സൈസ് ഏകദേശം അതായത് ഏകദേശം എൻ്റെ കാലിന് പറ്റിയ സൈസ് കറക്ട് സൈസും കാര്യങ്ങളും ഒക്കെ നോക്കിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നെ പിന്നെ നോക്കുമ്പോൾ എന്താ പറയുക അതില് കുറച്ച് വലിയ സൈസ് ഇപ്പോൾ നമ്മൾ ഓടുമ്പോൾ കുറച്ചു അഡ്ജസ്റ്റ് ചെയ്ത് ഓടീലാ പറഞ്ഞാ കാലിൽ നിന്ന് തെറിച്ചു പോണ രീതിയിലാണ് അത് വന്നിട്ടുണ്ടായിരുന്നത് അതും കുഴപ്പമില്ല പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് റെഡി ആക്കാ ഓടാന്നു പറഞ്ഞിട്ട് കുറച്ചു ദിവസം അങ്ങനെ ഒരു മൂന്നാലു ദിവസം ഓടി കറക്ട് നാല് അഞ്ചു നാല് ദിവസം ഓടി നാലാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം രാവിലെ ഓടി പകുതി ആയില്ല അതിനു മുമ്പു അയിൻറ്റെ സോളിൻറ്റെ പകുതി വിട്ടുവന്നു ഒന്നിൻറ്റെ അതുപിന്നെ പതുക്കെ നടന്നു നടന്നു വീട് എത്താനാകുമ്പോഴേക്കും മറ്റേതിൻറ്റെ സോളിൻറ്റെ പകുതിയും വിട്ടു വന്നു നല്ല അടിപൊളി സാധനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓർഡർ ചെയ്ത് ഇതാണ് എന്നിട്ട് ഞാൻ പിന്നെ അത് അവസാനം റിട്ടേൺ ചെയ്തു അവരതു കൊണ്ടുപോയിട്ടൊക്കെയുണ്ട് ഇനി പൈസ കിട്ടുവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല